അതായത് നമുക്ക് ആശങ്കയുള്ള മത്സ്യ ബന്ധനമായിട്ടുള്ള ആ ബന്ധപ്പെട്ട ചില പാരിസ്ഥിതിക പ്രശ്നങ്ങളൊന്തൊക്കെയാണെന്ന് വച്ചിട്ടൊണ്ടെങ്കില് ഇപ്പോൾ മെയ്നായിട്ട് പറയുവാണെങ്കിലിപ്പോൾ മത്സ്യബന്ധനത്തിനൊക്കെ ആളു ആണുങ്ങളൊക്കെ പോകുമ്പം തന്നെ ചിലപ്പം വളരെ അപകടകരമായിട്ടുള്ള കാര്യങ്ങളൊക്കേയിരിക്കും കാരണം എന്താന്ന് വച്ചിട്ടുണ്ടെങ്കിൽ വലിയ കാറ്റും മഴ അങ്ങനെയൊക്കെ വരുമ്പം ചിലപ്പം അവര് നടുകടലിലൊക്കെ എത്തുമ്പം അതായത് പിന്നെ അവര് പോകുന്ന ബോട്ടൊക്കെ അതായത് പിന്നെ ചെരിയും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നേന്ന് വച്ചിട്ടുണ്ടെങ്കിലവർക്ക് അതായത് ഈ മത്സ്യ ബന്ധനത്തിനൊക്കെ പോകുന്നവർക്ക് അതായത് ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമാണ് തിരിച്ച് വരാനുള്ള ഒരിതുണ്ടാവുകയുള്ളു കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടലിനൊക്കെ എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തിരിച്ച് വരാൻ പറ്റില്ല അപ്പം വലിയ മഴ കാര്യങ്ങളൊക്കെ വരുമ്പം നമ്മുടെ ഗവൺമെൻറ് തന്നെ അവരോട് പോകണ്ടാന്നുള്ള ഒ ഉത്തരവൊക്കെ ഇറക്കും പിന്നേന്ന് വച്ചാൽ ജൽന പിന്നെ സമീപ വർഷങ്ങളിൽ ജല മലിനീകരണം കാരണം ഉണ്ടായ അതായത് എന്തെങ്കിലും പ്രശനങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയ്നായിട്ടും തന്നെ നമ്മുടെ വേസ്റ്റ് അതായത് നമ്മള് പല വേസ്റ്റ്കളും ഇപ്പം നമുക്ക് പറയുവാണ് നമ്മുടെ ജില്ലയിൽ തന്നെ നമുക്ക് ഫുൾ വേസ്റ്റ് കാരണം കായല് കടലിലൊക്കെയാണ് കൊണ്ട് തള്ളുന്നത് അപ്പമെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ നമുക്ക് ജലമലിനീകരണ കാരണങ്ങളോ കാര്യങ്ങളൊക്കെയുണ്ടാകു പിന്നെ അതുകൊ അതുപോലെ തന്നെ നമുക്ക് മീനിൻ്റെ ലഭ്യതക്കുറവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരികയും ചെയ്യും